ഒരു നൃത്തം ഇപ്പം കാണുകയാണെങ്കിൽ നമ്മളെ സ്വാധീനിക്കണം തന്നെ നമുക്ക് ആ നൃത്തം കാണുമ്പോൾ ആഹ് അതിന് അതിനോടൊരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ നമ്മളെ അത് ഭയങ്കര ആകർഷിക്കുമായിരിക്കും കാരണം അതിലെ പാട്ടായാലും അതിലെ ഓരോ സ്റ്റെപ്പായാലും നമ്മുടെ നമ്മുടെ മൈൻഡിലേക്ക് അത് കയറുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളുടെ സ്വാധീനം ചെലുത്തുമായിരിക്കും എന്നാലും അനുസ്മരണീയവും മുൻഗണനാ നമ്മൾ ചിലപ്പോൾ എന്താ ചില നൃത്തങ്ങൾ കണ്ട് വീഡിയോസിലൊക്കെ ആ നൃത്തം നമ്മൾ യൂട്യൂബ് അങ്ങനത്തെ ഇതൊക്കെ വഴി നമ്മളത് കണ്ട് പഠിക്കുന്നുണ്ട് സോ അങ്ങനെ നമുക്ക് ചില നൃത്തങ്ങൾ ഭയങ്കരമായിട്ട് മനസ്സിൽ നിൽക്കും ചിലപ്പം പണ്ട് നമ്മൾ കണ്ട ഡാൻസുകൾ നമുക്ക് ഒത്തിരി ഇഷ്ടമാണെങ്കിലും അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകും അങ്ങനെ നൃത്തങ്ങൾ ചിലപ്പോൾ ഈ നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ട് സ്വാധീനവും സ്വ സ്വാധീനിക്കുന്നതുമാണ് അത് ഭയങ്കര തീവ്രശക്തിയും ഉള്ളതുമാണ് നൃത്തം നമ്മൾ എനിക്കും ഇങ്ങനെ കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഓർത്തു നമ്മൾ ചിലപ്പം ആ വീഡിയോസൊക്കെ അതേപോലെ തന്നെ അനുകരിക്കാനൊക്കെ ശ്രമിക്കും സോ നൃത്തം വളരെ വേണ്ടപ്പെട്ട ഇതാണ്